ഞാൻ ജീവിക്കുന്നത് മങ്ങാട്ടുകര എന്ന് പേരുള്ള ചെറിയ ഗ്രാമത്തിലാണ് പക്ഷെ ഇതുവരെ മങ്ങാട്ടുകരക്ക് മാത്രമായി ഒരു ആംബുലൻസ് കണക്റ്റിവിറ്റി ഇല്ല നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം വരുകയാണെങ്കിൽ തന്നെ തൊട്ടടുത്ത ടൗണായ അങ്കമാലിയിൽ നിന്നാണ് ആംബുലൻസ് വിളിക്കാറുള്ളത് അത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ പൊതുവെ നമ്മൾ ആംബുലൻസിനെക്കാളും ആംബുലൻസിനെക്കാളും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് അവരെ വീട്ടിലെ കാറുകളോ ഓട്ടോറിക്ഷകളുമാണ് അത്ര എമർജൻസി ആവശ്യമെങ്കിൽ മാത്രമാണ് ആംബുലൻസ് വിളിക്കേണ്ടി വരാറുള്ളത് എന്നിരുന്നാലും ദൂരെ നിന്നൊക്കെ വരുമ്പോൾ ആംബുലൻസ് ലേറ്റവുകയും ലേറ്റാവുകയും അത് നമ്മുടെ രോഗികളെ അവസ്ഥ ക്രിട്ടിക്കൽ ആക്കാനും വളരെ അധികം മോശമായും ബാധിച്ചിരിക്കുന്നുണ്ട്